എൻ്റെ പ്രദേശത്തെ ട്രാവൽ കമ്പനികളെ എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് ഏജന്റുമാരെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു ഞങ്ങൾ സാധാരണ വീട്ടിൽനിന്നും പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയാ ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില ഏജന്റുമാരെ ബന്ധപ്പെടാറുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് പറയുക എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി കാണാൻ സാ കഴിയുന്ന ഒരു ഏജന്റുമാരായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇംപോർട്ടന്റ് ഏരിയ കാണാൻ പോകുന്ന സമയത്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ വന്ന് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും അത് ചെയ്തു തരുന്ന ഒരു ഏജന്റിനെ എനിക്ക് പരിചയമുണ്ട് അത് എൻ്റെ ഫാമിലി എൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിന്റെ ഒരു സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലിയുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള കാര്യഗൗരവം അയാൾ കാണിക്കാണ്ട് ഉണ്ടായിരുന്നു ആ ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനം പറഞ്ഞാൽ അവിടേക്ക് നമ്മുടെ നമ്മളോടൊപ്പം വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലം എന്താണ് അതിൻ്റെ ഐതിഹ്യമോ അതിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ വേറെ വല്ല കെട്ടുകഥകളോ കഥകളോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടേ പറഞ്ഞുതരികയും പിന്നെ അതുപോലെ ട്രാവലിങ്ങിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം വണ്ടി വണ്ടി കൈകാര്യം ചെയ്യുകയും ഭക്ഷണമായാലും അല്ലെങ്കിൽ അക്കോമഡേഷൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി വളരെ വൃത്തിയുള്ളതും നമ്മളെ നമ്മൾക്ക് പറ്റാവുന്ന ബഡ്ജറ്റ് നിരക്കി അവർ നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരുമായിരുന്നു എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ വളരെയേറെ ശ്രദ്ധാപൂർവ്വം വളരെ ചെയ്തു ചെയ്തുതരാറുണ്ടായിരുന്നു കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പാർക്കേരിയകളും നമ്മൾ പോകുന്ന ഭാഗത്ത് ഏതെങ്കിലും പാർക്കേരിയകളുണ്ടെങ്കിൽ കുട്ടികളുമായി അവിടെ പോകാനുള്ള ഒരു നിർദ്ദേശങ്ങളും അവർ തരുമായിരുന്നു അവർ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു നല്ലൊരു ഏജന്റിനെ എനിക്ക് പരിചയമുണ്ട്